കുഞ്ഞ് മൃഗങ്ങളിൽ പട്ടി ഡോഗ് അതിനെ നമ്മൾ വളത്തുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ നമ്മളോട് ഏറ്റവും അധികം ഇണങ്ങുന്ന മനുഷ്യ രാശിയിൽ ഇണങ്ങുന്ന ഒരു മൃഗമായിട്ടും വന്നിരിക്കുന്നതാണ് പട്ടി ഡോഗ് എന്ന് പറയുന്നത് ഈ ഡോഗിനെ നമ്മൾ എങ്ങനെ നമ്മൾ പരിശീലിക്കുന്നോ അതുപോലെയാണ് അവർ വളർന്ന് വരുന്നത് ചെറുപ്പം തൊട്ടേ അതിനെ സ്നേഹിക്കുകയും അത് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അനുഭവത്തിൽ കൂടെ വരും കാണാം ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതിനെ രാവിലെ കുളിപ്പിക്കുകയും പിന്നെ ആഹാരം കൊടുക്കുകയും നമ്മൾ പിന്നെ വാക്കിങ്ങിന് പോകുമ്പോൾ കൊണ്ട് പോകുകയും നടക്കാൻ സമയത്തും അഴിച്ചു വിടുന്ന സമയത്തും ഒക്കെ അതിനെ ട്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ആരോഗ്യം ഉണ്ടാകുകയും നല്ല ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് നല്ല വളർച്ചയിൽ വരും രോഗപ്രതിരോധത്തിനുള്ള കഴിവ് തൊണ്ണൂറ് ശതമാനം പട്ടികുഞ്ഞുങ്ങളിലും ഉണ്ട് അപ്പം ആ രോ കാര്യങ്ങളിൽ ഇതിനെ വളർത്തിയെടുക്കുമ്പോൾ ചിട്ടയോട് കൂടി ഓരോ ദിവസവും നമ്മൾ അതിനെ പരിപാലിക്കണം ഇപ്പോൾ പത്രം എടുത്ത് കൊണ്ട് വരാൻ പോകുമ്പം നമ്മൾ പിന്നെ പത്രം എടുക്കാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടു വന്ന് വെളിയിൽ ഉള്ള പത്രമാണെങ്കിൽ വീട്ടിൽ കൊണ്ട് തരും പിന്നെ എനിക്കുള്ളത് എനിക്കുള്ള പട്ടി ഒരണ്ണത്തിനെ ഞാൻ വളർത്തുന്നുണ്ട് ലാബ് എന്നാണ് അതിൻ്റെ പേര് അത് നല്ല രീതിയിൽ വളർത്തി നല്ല പ്രയോജനമുണ്ട്